ഹലോ ഹ്യുണ്ടായ് ഷോറൂം ആണോ ഹ്മ് പിന്നെ ഞങ്ങളൊരു കാർ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം പുതിയ മോഡലിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് കാർ ഒക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു

നമുക്കൊരു മുപ്പത് ലക്ഷം ആണ് ബഡ്ജറ്റിൽ ആ ഫാമിലി കാർ അതായത് ഫോർ സീറ്റ്

സെവൻ സീറ്ററിനൊക്കെ എത്രയാണ് റേറ്റ് വരിക

ആ ഓക്കെ

എയർ ബാഗ് ഒക്കെ ഉണ്ടോ വരുന്നുണ്ടല്ലേ ഹ്മ് നമുക്ക് ഫ്രണ്ട് കുറച്ച് അതായത് വീതി ഉള്ള അതായത് നീളം ഉള്ള സൈസ് കാർ മതിയേ കാരണം ആക്സിഡൻറ്റ് ഒക്കെ

എത്രയാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ചില്ലറ വരും അല്ലേ ആ ഹ്മ് ആ നമ്മൾ ലോൺ ലോൺ ഇട്ട് എടുക്കാൻ വേണ്ടി ആണേ ആദ്യം ഒരു അഞ്ച് ലക്ഷം അടച്ചിട്ട് ബാക്കി നമ്മൾ ലോൺ ഇടുന്നത് ഇനി ഞങ്ങൾ നേരിട്ട് വരാം കേട്ടോ കളർ ഒക്കെ നമ്മൾ അവിടെ പോയി നോ അവിടുന്ന് നോക്കിയിട്ട്

ആ ഓക്കെ